ഇവിടെ കോഴിക്കോട് ജില്ലയിൽ ഞാൻ താമസിക്കുന്ന അടുത്ത് തന്നെയാണ് ഫറൂഖ് കോളേജ് കേരളത്തിൽ തന്നെ അറിയപ്പെട്ട ഒരു കോളേജാണ് ഫറൂഖ് കോളേജ് ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികൾ ക്യൂ നിൽക്കുന്നുണ്ട് എന്നാൽ പോലും ഇവിടെ മെറിറ്റിൽ കിട്ടേണ്ടതായിട്ടുണ്ട് ഇപ്പം മെറിറ്റിൽ കിട്ടുകയാണെങ്കിൽ അധികം അഡ്മിഷൻ ഫീ ഇവിടെ വേണ്ട അല്ലാണ്ട് ഇപ്പം നമ്മൾ പോയി ചേരുമ്പോഴാണെങ്കിൽ ഒരുപാട് പൈസ കൊടുത്തിട്ട് വേണം അവിടെ പൈസ കെട്ടിവെക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതുകൊണ്ടുതന്നെ നല്ല രീതിയിൽ പഠിച്ചാൽ അവിടെത്തന്നെ സീറ്റ് നമുക്ക് ഉറപ്പിക്കാം അവിടെത്തന്നെ ഒരുപാട് കോഴ്സുകളുണ്ട് ഇപ്പം എൻ്റെ കുടുംബത്തിൽ എൻ്റെ കസിൻ ബ്രദർ അവിടെയാണ് പഠിക്കുന്നത് അത് എം ബി എ എം ബി എ ആണ് ഫറൂഖ് കോളേജിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ അവിടെത്തന്നെയാണവൻ അവൻ്റെ ഡ് ഡിഗ്രി കോഴ്സ് ചെയ്തത് അതും ബി കോമാണ് ചെയ്തത് ബി കോം കഴിഞ്ഞ ശേഷം ഇപ്പോൾ അവിടെ എം ബി എ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട്തന്നെ പിന്നെ നല്ല അഡ് നല്ല ഒരു കോളേജാണവിടെ പിന്നെ അതല്ലാതെ ഒരുപാട് കോളേജുകൾ അവിടെ അടുത്തുതന്നെ ഉണ്ട് പക്ഷേ പേരുകേട്ട ഒരു കോളേജ് ഫറൂഖ് കോളേജ് തന്നെയാണ്